അപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആയിട്ട് തോന്നിട്ടുള്ള ഒരു ട്രക്കിംഗ് എന്ന് ഒക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ വയനാട് ജില്ലയിൽ പോയപ്പോഴുള്ളൊരു ട്രക്കിങ്ങിൻറ്റെ അനുഭവമാണ് കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സും ഒത്താണ് പോയത് പിന്നേ കുറച്ച് കസിൻസും ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ കൂടേ ഞാൻ ട്രക്കിങ്ങിന് പോവുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മേപ്പാടിയുള്ള ചെമ്പ്ര പീക്ക് എന്ന് പറയുന്നൊരു സ്ഥലത്ത് ആയിരുന്നു അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ ആദ്യം എൻട്രി ഫീ കാര്യങ്ങളൊക്കേ ഉണ്ടായിരുന്നു നോക്കുമ്പോൾ ഉണ്ട് ആൾക്കാരൊക്കേ കയറുമ്പോഴൊക്കേ നല്ല ഇതിലാണ് പോകുന്നത് പിന്നേ നമുക്ക് ഇതിൻ്റെ മുകളിൽ എന്താണെന്നുള്ളൊരു സർപ്രൈസെന്നൊക്കേ പറഞ്ഞിട്ടാണ് ചേട്ടന്മാരും കസിൻസൊക്കേ നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ എന്താണെന്നുള്ള കാര്യമൊന്നും നമുക്കും കറക്റ്റ് അറിയത്തില്ലായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കയറി മുകളിൽ എത്തി കഴിഞ്ഞപ്പോഴാണ് അവർ എന്താ പറയുക ഒരു ലവ് ചിഹ്നത്തിലുള്ളൊരു ഇത് ലെയ്ക്കും കാര്യങ്ങളൊക്കേ ഉണ്ട് അപ്പോൾ അതൊക്കേ കണ്ട് കഴിഞ്ഞപ്പം നമുക്ക് എന്താ പറയുക ഒരു എന്താ പറയുക ഒരു സർപ്രൈസ് ആകുകയെന്ന് പറയുന്ന ആ ഒരു ഇതാണ് എന്താ പറയുക ഒരു കൗതുകം തോന്നി കാരണം നമ്മൾ ഇതിൻറ്റെ മുകളിൽ അതായത് ഹിൽ ടോപ്പിൽ ഇങ്ങനേ ഒരു ഇതെന്നൊക്കെ പറയുമ്പോൾ നല്ല തണുപ്പും കോടയും അടിപൊളി ഒരു സ്പോട്ട് ആയിരുന്നു അപ്പം ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും എന്താ പറയുക കണ്ടതിൽ തന്നേ ഏറ്റവും നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് തന്നെയായിരുന്നു അത് ഞാൻ അധികം ദിവസമൊന്നുമില്ലാ ഒരു ദിവസം തന്നേ അവിടേ എന്താ പറയുക രാവിലേ കയറി ഉച്ച ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത് ഇറങ്ങി പോരുകയാണ് ചെയ്തത്